എഴുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് രണ്ടു ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് അഞ്ചു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് എട്ടു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒന്പതു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയെട്ട്